മൂന്ന് മൂന്ന് രണ്ടായിരത്തി ഒന്ന് പതിനാല് നാല് രണ്ടായിരത്തി എട്ട് മൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പിന്നെ എട്ട് പതിനൊന്ന് രണ്ടായിരത്തി രണ്ട് പതിനെട്ട് ഒന്ന് രണ്ടായിരം